ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാർ ഭരണത്തിൽ ഇല്ലാത്ത ഘടകങ്ങൾ എന്നുവെച്ചാൽ അവരുടെ ചുറ്റുവട്ടം ഓരോ വീടുകളിലും ചുറ്റുവട്ടങ്ങളിൽ ചെറിയ സ്ഥലവും കുറഞ്ഞ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർക്ക് വേസ്റ്റൊക്കെ ഇടാൻ വളരെ ബുദ്ധിമുട്ടാണ് വേസ്റ്റ് ചാടാനും അതുപോലെ അവർക്ക് പച്ചക്കറി കൃഷി ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അവര് വേസ്റ്റ് ചാടാനാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അവർക്കൊരു ചെറിയൊരു ഭൂമിയാണെങ്കിൽ അതിൽ വേസ്റ്റ് കളയാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ വേസ്റ്റ് നിക്ഷേപിക്കാനൊരു സംവിധാനം സർക്കാർ നൽകേണ്ടതാണ് അത് പലയിടത്തും ഇപ്പോൾ കണ്ടുവരുന്നില്ല അതുപോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ എടുക്കാൻ ഒരുപാട് വീട്ടിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് എന്നാൽപ്പോലും ചിലയിടത്ത് ഇപ്പോഴും ആരും വരു പ്ലാസ്റ്റിക്ക് കളക്റ്റ് ചെയ്യാൻ വരുകയോ അതൊന്നും കാണു കാണുന്നതായിട്ട് കാണുന്നതായിട്ടില്ല പിന്നേ അതുപോലെ ഈ റോഡ് റോഡിന്റെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളായിക്കോട്ടെ റോഡുകളൊന്നും അധികം പുരോഗമനം ഇല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു കാണുന്നത് അതിപ്പോൾ നടക്കുന്ന ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ ചെളിയിലൂടെ നടക്കേണ്ടുന്ന ഒരവസ്ഥയാണ് വരുന്നത് പിന്നെ നന്നാക്കാം നന്നാക്കാം എന്നു പറയുന്നതല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഇടപെടലുകളും കണ്ടുവരുന്നതായിട്ടിപ്പോൾ ഇല്ല ചെറിയ ഇടവഴികളൊക്കെ ഉള്ളത് ഒരു ചെറിയ കല്ല് വെച്ച് കല്ലിട്ട റോഡുകളൊക്കെ അങ്ങനെ അതുപോലൊന്നും കാണുന്നില്ല പിന്നെയതുപോലെ മഴക്കാലങ്ങളിലൊക്കെ പിന്നെ ഈ വീടുകൾക്കുള്ള വീടുകളുടെ ചെറിയ അടുത്തടുത്തടുത്ത് വീടുകളും അല്ല ഗ്രാമപ്രദേശങ്ങളെയൊക്കെ ചുറ്റുവട്ടത്തും എല്ലാം ഒക്കെ നന്നായിട്ട് ശുചീകരണം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയായിക്കോട്ടെ എല്ലാ ഇടങ്ങളിലും ഉണ്ടല്ലോ തൊഴിലുറപ്പ് പദ്ധതി അതുപോലുള്ള ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് വരുന്ന ആൾക്കാരായിക്കോട്ടെ ചിലർ അതൊന്നും എടുക്കാതെ അവര് വെറുതെ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഒന്ന് വന്നു പോകും അല്ലാതെ ചുറ്റുവട്ടങ്ങളിൽ അല്ലെങ്കിൽ ചപ്പല് ഇപ്പോൾ കാട് മൂടിയുള്ള പ്രദേശങ്ങളിലായിക്കോട്ടെ ഒരു അങ്ങനെയൊന്നും കാണുന്നില്ല അവരുടെ ഒരു ഇടപെടലുകളൊന്നും കാണു കാണുന്നതായിട്ടില്ല പിന്നെ അതുപോലെ ഈ കൊതുകുകളുടെ ശല്യം തന്നെ ഇപ്പോൾ ചെറിയ ചാലുകളായിക്കോട്ടെ ചെറിയ ഇപ്പോൾ അടുത്തടുത്ത് കോളനി പോലുള്ള വീടുകളിലായിക്കോട്ടെ ഒരുപാട് വേസ്റ്റും എല്ലാം പോകുന്നൊരു ചെറിയ ചാലുണ്ടാവും ചാലുകളുണ്ടാക്കാനും അതുപോലെ ചാലുകളും ഇപ്പം ശരിയായിട്ടല്ല നിർമ്മിച്ചിരിക്കുന്ന ചാലെങ്കിലും നല്ല കൊതുകുകളും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസുണ്ട് അപ്പോൾ അവിടെയൊക്കെ സർക്കാർ ഒരു അവർക്കൊരു താങ്ങായിട്ട് നിൽക്കേണ്ടൊരു സമയമാണ് പക്ഷേയെങ്കിൽ അതൊന്നും കണ്ട് കണ്ടുവരുന്നില്ല ഇപ്പോൾ പിന്നെ അതുപോലെ അതൊക്കെ അവരുടെ ഭരണത്തിൽ ഇല്ലാത്ത ഘടകങ്ങൾ ഘടകങ്ങളൊന്നും അല്ല എങ്കിൽപ്പോലും ഭരണം ഇല്ലാത്ത ഘടകങ്ങൾ എന്നു പറയുമ്പോൾ ഉളളത് തന്നെ അവരിപ്പോൾ നോക്കുന്നില്ല